ഹലോ സാർ ഞാന് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു കുറച്ച് മുമ്പ്

എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ റീഫണ്ട് കിട്ടിയിട്ടിയുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു നിങ്ങൾ വളരെ നന്നായിട്ട് സെർവ് ചെയ്തു ലൈക്ക് പെട്ടെന്ന് തന്നെ ഷിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാരണം കൊണ്ട് എനിക്കത് ക്യൻസൽ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റീഫണ്ട് തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതിൻ്റെ ബിൽ പെയ്മെൻ്റ് ലാസ്റ്റ് നമ്പർ ഫോർ ണയൻ സെവൻ ത്രീയാണ് നൂറ്റി എൺപത്തി അഞ്ചു രൂപയാണ് വന്നിട്ടുള്ളത് അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടണം